ഞങ്ങൾടെ സമുദായത്തെ ക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങടെ സമുദായത്തിലുള്ള ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ചേർന്ന് ഒരു സംഘം രൂപീകരിച്ച് അതിൽ തന്നെ നമ്മൾ കൃഷികൾ ഒ ചെയ്തു ഒരുപാട് പേർ ഞങ്ങളൊരുപാട് പേർ സംഘം കൂടി കൃഷി ചെയ്തു അതിൽനിന്ന് വരുമാനമെടുത്ത് ഞങ്ങൾ തന്നെ എല്ലാം പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട് സംഘക്കാരെടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നല്ല വരുമാനമാണ് കിട്ടുന്നത് ഏറ്റവും നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നത് തന്നെയാണ് പച്ചക്കറി കൃഷി വാഴക്കൃഷി അങ്ങനൊരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങൾ പിന്നെ ഇപ്പം പ കൃഷിയൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് പന്നി ശല്യം കാരണം എന്നാലും നമ്മൾ ഒരുപാടൊക്കെ വേലിയൊക്കെ മുള്ള് വേലിയൊക്കെ കെട്ടി സാരി ഒക്കെ കെട്ടി മറച്ച് അങ്ങനൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ കുറച്ചൊക്കെ പന്നി കൊണ്ടുപോകും ബാക്കിയൊക്കെ പിന്നെ പെരിച്ചാഴി ശല്യമുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തന്നെയാണ് ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്നത് കൃഷി ചെയ്ത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളെ സംഘക്കാർ തന്നെയാണ് എല്ലാം വീതിച്ചെടുക്കുന്നത് പിന്നെ അതിൽ ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട് നമ്മൾ ഒരു സംഘം എന്ന് പറയണത് ഒരു അറുപത് പേരുണ്ട് നമ്മൾ ഒരു സംഘത്തിൽ ഇരുപത് പേരെ പാടുള്ളു പക്ഷേ നമ്മുടെ സമുദായത്തിന്റെ ഇതായതുകൊണ്ട് ഞങ്ങൾ അറുപത് പേർ കൂടെ ചേർന്നാണ് പിന്നെ നെൽ കൃഷി ചെയ്യാറുണ്ട് നമ്മൾ വിളകളോക്കെ പാട്ടത്തിനെടുക്കും പാട്ടതിനെടുത്തിട്ട് അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൃഷി ചെയ്യും നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് വാഴ കൃഷി ചെയ്യുന്നുണ്ട് മരച്ചീനി പിന്നെ ചേമ്പ് ചേന കാച്ചിൽ പിന്നെ ചെറുകിഴങ്ങ് കൂവ എല്ലാം നടാറുണ്ട് പിന്നെ ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട് ഇഞ്ചീന്നക്കെ നമുക്ക് നല്ല നേട്ടമാണ് ഇഞ്ചി പന്നി എടുക്കറില്ല പിന്നെ ഇഞ്ചി കൃഷി ചെയ്യാറുണ്ടു മഞ്ഞൾ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട് അതും എടുക്കാറ് പന്നി എടുക്കാറില്ല പന്നി എടുക്കുന്നേൽ ചേന കൃഷി ചെയ്താൽ അത് കുറച്ചൊക്കെ പന്നി കൊണ്ടുപോകും കുറച്ച് നമുക്ക് കിട്ടും ചേമ്പായാലും അങ്ങനെ തന്നെ ബാക്കിയുള്ള കൃഷിയൊക്കെ പന്നി കുറച്ചൊക്കെ നശിപ്പിക്കും കുറച്ചൊക്കെ നമുക്ക് കിട്ടും അതിലൊക്കെ നമുക്ക് നല്ല വരുമാനമാണ് നല്ല വരുമാനം പന്നി എട്ത്താലും വരുമാനം ഉള്ളതിന്റെ പേരിലാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റബ്ബർ കൃഷി റബ്ബറുണ്ട് തെങ്ങുണ്ട് ഇതെല്ലം എല്ലാം നല്ല വരുമാന മാർഗ്ഗമാണ് റബ്ബർ ആയാലും ഏഴ് വർഷം കഴിയുമ്പോൾ നമുക്ക് റബ്ബർ വെട്ടാം അതിൽ നല്ല വരുമാനം ഉണ്ട് പിന്നെ തെങ്ങ് തേങ്ങ ഒക്കെ കിട്ടും എല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഒരു പലരിൽനിന്നും പുരയിടങ്ങൾ പാട്ടത്തിനെടുത്താണ് ഞങ്ങളിത് ചെയ്യണത് കൃഷി ചെയ്യണത് അവർക്ക് ഒരു മൂന്ന് വർഷത്തേയ്ക്ക് പാട്ടം എടുക്കും രണ്ട് വർഷത്തേയ്ക്ക് അങ്ങനെയൊക്കെയാണ് എടുത്ത് കൃഷി ചെയ്തോണ്ടിരിക്കുന്നത്